എനിക്ക് വളർത്താൻ അതായത് ചെടികളും പൂക്കളും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ചെടികളാണെങ്കിലും പൂക്കളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും എനിക്ക് വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ് ചെടികളിൽ കൂടുതൽ ഏതാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡാലിയ ഇഷ്ടമാണ് ഡാലിയ ഒക്കെ ഓരോ സീസണേ ഉണ്ടാവുകയുള്ളൂ ഓണ സീസണിൽ ഒക്കെ കൂടുതലായിട്ടും ഉണ്ടാവുകയുള്ളൂ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോസ് ഭയങ്കര ഇഷ്ടമാണ് ഈ നമുക്ക് റോഡ് സൈഡ് ഒക്കെ ഇപ്പോൾ ഒരുപാട് റോസാ ചെടികൾ ഒക്കെ വേരോടെ ഉള്ളത് കിട്ടുന്നുണ്ട് ഇരുപത് രൂപക്കും മുപ്പത്ത് രൂപക്കും ഒക്കെ നല്ല അടിപൊളി റോസ് ഒക്കെ ഉള്ളത് കിട്ടുന്നുണ്ട് അത് അത്യാവശ്യം നല്ലവണ്ണം പിടിക്കുന്നുമുണ്ട് അങ്ങനെ തന്നെ ഇടക്ക് ഇടക്ക് ഒരു ഒരു പത്ത് പന്ത്രണ്ടണ്ണം മേടിച്ചിട്ടുണ്ടാകും ഒരുമിച്ചല്ല ഇടവിട്ട് ഇടവിട്ട് ഇടക്ക് ടൗണിൽ പോകുമ്പോൾ കാണുമ്പം മേടിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ അത്യാവശ്യം നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് പ്ലേറ്റ് ചെടികൾ പ്ലേറ്റ് ചെടികൾ ഒരുപാട് ഞാൻ വളർത്തിയിട്ടുണ്ട് കാരണം അത് പലതരത്തിലുള്ള നമുക്ക് എപ്പോഴും പൂക്കൾ ഉള്ള ഒരു ചെടിയാണ് പ്ലേറ്റ് ചെടി അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പൂക്കൾ ഉണ്ടാകുന്നത് ആണല്ലോ നമുക്ക് പ്രത്യേകിച്ച് ചെടികൾ നടുന്നത് ഭംഗി ഉള്ള പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയാണല്ലോ നമ്മൾ നടുന്നത് പിന്നെ അതുപോലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചെണ്ടുമല്ലി അതായത് നമുക്ക് ഈ ഓണ സീസൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണത്തിന് പൂവെല്ലാം ഇട്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ വിത്ത് കുറെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കള കളയാതെ അതെല്ലാം ഇങ്ങനെ വിതറിവെച്ചിട്ടുണ്ടെങ്കിൽ താനെ അത് നല്ലവണ്ണം പൂവിട്ട് അത് കുറച്ച് കാലം കഴിയുമ്പം നിറച്ച് പൂവുണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്